സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചേക്കുന്നത് എന്താ എന്ന് അറിയുമോ നമുക്കുള്ളതിനെ നിർത്തിയിട്ട് നമ്മൾ വേറെ ഒന്നിനേയും തേടിപ്പോവരുത് നമുക്ക് നമ്മുടെ അടുത്തുള്ളതായിരിക്കും ബെസ്റ്റ് പക്ഷേ നമ്മള് വേറെ ബെസ്റ്റുകളെ തേടി പോകുമ്പോൾ നമ്മുടെ ജീവിതം നശിച്ചു പോകത്തേ ഉളളൂ ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു കാര്യമായി മാറി ജീവിതത്തില് നല്ലതാണു ഫ്രണ്ട്ഷിപ്പ് നല്ലവരായിട്ടുള്ളവരും ഉണ്ടാവും പക്ഷെ എല്ലാവർക്കും നല്ലത് കിട്ടണം എല്ലാവർക്കും അവരെപ്പോലെ ആവണം നമ്മളെന്നു വിചാരിക്കണത് തെറ്റാണല്ലോ അപ്പോൾ ഞാനാര് ഞാനുണ്ടല്ലോ ഞാനെന്തു കാര്യത്തിലും പരിപൂർണ്ണ നൂറു ശതമാനവും കൊടുക്കുന്ന ആളാ എന്തിലായിക്കോട്ടെ എന്ത് ബന്ധത്തിലായിക്കോട്ടെ എന്തൊരു പ്രവർത്തനത്തിലായിക്കോട്ടെ എൻ്റെ നൂറു ശതമാനം ഞാനതില് അർപ്പിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും നമുക്കതൊരു ട്രാജഡി ആവാറുണ്ട് എൻ്റെ ലൈഫാണെനിക്ക് നിങ്ങൾക്ക് മുൻപിൻ പറയാൻ പറ്റുകയുള്ളൂ കാരണം വേറെ ആളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പാഠങ്ങളാണ് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് നമുക്ക് നമ്മള് വിചാരിക്കും അവരൊക്കെ നമുക്ക് എല്ലാം ആണെന്ന് ഒന്നുമല്ല അവർക്ക് നമ്മളൊന്നുമല്ല നമുക്ക് നമ്മുടെ സ്വന്തം അച്ഛൻ അമ്മ ഭർത്താവ് മക്കൾ അതായിരിക്കും പിന്നെ സ്വന്തമായിട്ടിരിക്കുക ഈ സുഹൃത്ബന്ധങ്ങളൊക്കെ വെറും കാഴ്ചക്ക് രണ്ടു പ്രാവശ്യം നമ്മുടെ കൂടെ വരുന്നു ഒരു ഗ്ലാസ് ടീ കുടിക്കുന്നു അതോടെ കഴിഞ്ഞ ബന്ധങ്ങളാണ് ഇപ്പോഴത്തെ തലമുറയിലൊക്കെ ഒരു ഫാഷനാണ് പക്ഷെ അതൊന്നും ഒരു നന്മയിലേക്ക് പോകുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വലിയൊരു കുഴിയിലോട്ട് വീണുപോയാൽ നമുക്കത് കേറാൻ പറ്റൂല്ല